ഞാൻ അവിസ്മരണീമായ മലകയറ്റ യാത്ര എന്നുവച്ചാല് ഞാന് രണ്ട് പ്രാവശ്യം വ വലിയൊരു മല് മലേൻ്റെ മേലെ കയറിയിട്ടുണ്ട് അതെന്ന് വച്ചാൽ ഒന്ന് കഴിഞ്ഞ ക്ലൈമ്പിങ്ങില് പറഞ്ഞപോലെ ചിക്കമഗളൂരില് അതുപോലെ വായനാട്ടിലൊരു സ്ഥലാണ് കുറുമ്പാലകോട്ട അതെന്നുവച്ചാല് വലിയൊരു മ കുന്നിൻ്റെ മുകളിലാണ് ഇത് ഇത് മേലേ കയറിയാൽ എന്താ കാണാൻ പറ്റുകാന്നുവച്ചാൽ മേലെ സൺ സെറ്റ് രാവിലെ ഒരു ആറേമുക്കാല് ആറ് മണി ആ സമയത്ത് രാവിലവിടെത്തിയാല് നല്ല ഉദയ ഉദയ്ക്ക് സൂര്യനുദിക്കുന്നത് അടിപൊളിയായിട്ട് കാണാം സൂര്യനുദിച്ച് മേലെ ഒക്കെ ഇതുപോലെ മെല്ലെ മെല്ലെ മെല്ലെക്കെയാണ് വരുന്നത് അടിപൊളിയായിട്ടാണ് അതുപോലെ മേ ഫുൾ കോടയായിരിക്കും മഞ്ഞു മൂടിയിട്ട് കോട ഫുൾ കോട അടിപൊളിയായിരിക്കും മഞ്ഞിൻ്റെ മുകളില് നമ്മൾ നിൽക്കുന്നതു പോലെ ഒക്കെയുണ്ട് മല കയറ്റംന്ന് വച്ചാല് ഞാനും ഹസ്ബഡായിരുന്നു പോയിരുന്നത് അപ്പം അതിൻ്റെ മ മുകളില് കയറാൻ മുകളിലേക്ക് കയറാന് ഒരു സ്കൂട്ടറിലായിരുന്നു സ്കൂട്ടറിലല്ല ബൈക്കില് ബുള്ളറ്റിലായിരുന്നു പോയിരുന്നത് പകുതി എത്തുമ്പഴത്തേക്ക് ബുള്ളറ്റ് കയറില്ല അത്രക്ക് വലിയ മലയാണ് കുന്നില് കുന്ന് പോലെ കയറണമായിരുന്നു അപ്പോൾ ഊരി ഊരി പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ബൈക്കിൽ നിന്നിറങ്ങി ബുള്ളറ്റിൽ നിന്ന് ഇറങ്ങി നമ്മള് നടക്കാൻ തുടങ്ങി അയ്യോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നടന്ന് മേലെ എത്താന് അങ്ങനെ നമ്മള് മേലെ എത്തി അടിപൊളിയായിരുന്നു അതുപോലെ ചിക്കമംഗ്ലൂര് അത് കോൾ ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴായിരുന്നു ചിക്കമംഗളൂര് പോയത് അപ്പ അവിടുന്ന് നമ്മുടെ ട്രക്കിങ്ങ് ചെയ്യുന്നു ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ വായന ഒന്ന് സ്റ്റക്കായി അപ്പൊൾ നമ്മള് കുന്ന് കയറാൻ തുടങ്ങി ഈ ശരിക്ക് മെയിൻ റോട്ടിൽ റോട്ടിലൂടെ എത്തുന്നതിനേക്കാളും മുമ്പെ കുന്നു കേറിയെത്തും എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഫ്രണ്ട്സും നമ്മളൊക്കെ കുന്ന് കയറാൻ തുടങ്ങി അത് അടിപൊളിയായി അടി അടിപൊളിയായിട്ടുള്ള സംഭവമായിരുന്നു കാര്യങ്ങൾ പഠിച്ചെന്നുവച്ചാല് നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലം നല്ല ഒരു സ്ഥലം കാണണെങ്കിൽ നമ്മളെന്തായാലും ആ കുന്നും മലയും കയറിയേ പറ്റു അതുകൊണ്ട് തന്നെ ഇനി ഇപ്പോൾ ഏതൊരു കുന്ന് കാണിച്ച് തന്നാലും അതിൻ്റെ മുകളില് കയറും